ആ സ്കൂൾ കൗൺസ്ലറല്ലെ ആ സാറെ ഞാൻ എന്റെ ആധാർ എടുക്കാൻ വേണ്ടി ആയിരുന്നെ ആ ആ ഇത് എടുക്കാൻ ഞാൻ ഇതെവിടെ വരേണ്ടത് സാറെ ഓഹ് അക്ഷയയിലാണോ ആ ആ സാറെ അതിനെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് പ്രൂഫ് എന്തൊക്കെയാണ്

ഓഹ് ആ മറ്റെ എസ് എസ് എൽ സി ബുക്കിൻ്റെ ആ ഓക്കെ ഓക്കെ എസ് എസ് എൽ സി ബുക്ക് മാത്രം മതിയല്ലെ സാറെ ഇത് അടുത്ത് എവിടെ സാറെ അക്ഷയ കേന്ദ്രമുള്ളത് ആ ഇവിടെ കോഴഞ്ചേരിയിൽ ആ ഇതെത്ര സമയമെടുക്കും സാറെ ഇത് ആധാർ എടുക്കാനുള്ള സമയം ആ ആ ഞാൻ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ എടുക്കേണ്ടതാണൊ അല്ലെ നേരിട്ടങ്ങ് വന്നാൽ മതിയല്ലെ ആ ആ ഇത് ആധാർ അപ്പം ഇപ്പം ഇന്ന് വന്ന് എടുത്തു കഴിഞ്ഞാൽ എത്രദിവസം കൊണ്ട് എനിക്ക് കിട്ടും ഒരാഴ്ച്ച എടുക്കുമല്ലെ ഒരാൽത്തം നമ്മുടെ പോസ്റ്റ് പോസ്റ്റ് വഴിയല്ലെ വരുന്നത് ആ ആ ആ ആ സാറെ ഇതിന്റെ തിരുത്തൽ എന്റെ ഒരു എസ് എസ് എൽ സി ബുക്കിലൊരു തിരുത്തൽ തിരുത്തലുണ്ട് അപ്പം ഇത് ആധാറിനകത്തത് നമുക്ക് വേറെ തിരുത്താൻ പറ്റുമോ ഇല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്ക് പോലെതന്നെ വരത്തുള്ളു അല്ലെ ആ അല്ല എന്റെ ഡേയ്റ്റ് ഓഫ് ബർത്തിന് ചെറിയൊരു വർഷത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാരുന്നു ചോദിച്ചത് ആ ആ ആ തിരക്ക് തിരക്കായിരിക്കുമല്ലെ ആ ആ ആ അല്ല സാറെ അപ്പം ഈ ഡേയ്റ്റ് ഓഫ് ബർത്ത് തിരുത്താൻ വേണ്ടി അപ്പം എസ് എസ് എൽ സി ബുക്ക് തിരുത്തിയാലെ പറ്റത്തുള്ളു അല്ലെ ആ ഇതിന് എത്ര രുപയാണ് സാറെ ഫീസാവുന്നത് അയ്യൊ അത്രയേ ഉള്ളൂ അല്ലെ ഇത് നമ്മുടെ ആ ഏത് ആപ്ലിക്കേഷനിൽ കയറി ഡൗൺലോഡ് ചെയ്യുന്നതാണല്ലെ ഏത് ആപ്ലിക്കേഷനിൽ കയറണം സാർ

ആ അതിനകത്ത് കയറി ഡൗൺലോഡ് ചെയ്താൽ മതിയല്ലെ ആ നമ്മൾ ആ ഏതെങ്കിലും കഫെ കഫേയിൽ ചെയ്താൽ മതിയല്ലെ ഓക്കെ ഇത് സാറെ ഇന്നുതന്നെ വന്നാൽ ഇപ്പം ഇന്നുതന്നെ ചെയ്തു കിട്ടാൻ പറ്റുമോ അത് ആൾ തിരക്കായിരിക്കുമോ അതൊ ഇല്ലെ തിരക്കില്ലെ ആ സാറെ ഇന്നുതന്നെ വന്നു കഴിഞ്ഞാൽ ഇന്നുതന്നെ പെട്ടന്നത് ചെയ്തു കിട്ടുമോ അതൊ അതിന് താമസമുണ്ടാകുമോ ഇന്ന് അല്ല ഈ ഓൺലൈൻ വഴിയല്ലെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത്

എനിക്കിപ്പം ആധാറെടുത്തിട്ട് വേണം എനിക്കടുത്ത പാൻകാഡും കൂടെ എടുക്കാൻ വേണ്ടിയാണെ ഇപ്പം നമ്മളതും ഇപ്പം അതെടുത്തേ പറ്റത്തുള്ളു അതുകൊണ്ടാണ് പതിനെട്ട് വയസ്സിലത്തെ ഇന്നലെയാണ് പൂർത്തി ആയത് വന്ന് വന്ന് ഇപ്പം പെട്ടന്നു തന്നെ എടുക്കുകയാണെങ്കിലത് കഴിഞ്ഞിട്ട് ലൈസൻസുകൂടെ എടുക്കണം ഇതെല്ലാം ഇതെല്ലാം ഒരുമിച്ച് സാറെ അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണോ അവടെത്തന്നെ വന്നാൽ അക്ഷയയിൽ ഒരാവിശ്യം ആ അപ്പോൾ ഒരുമിച്ചങ്ങ് ചെയ്യാമല്ലൊ കാരണമെന്ന് വച്ചാൽ ആധാറും പാൻകാഡും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ആയിരുന്നെ ഈ തിരുത്തൽ കൂടെ വന്നതുകൊണ്ട് ആ തിരുത്ത് ഇനിയും എസ് എസ് എൽ സി ബുക്ക് തിരുത്തണം അത് കഴിഞ്ഞ് പിന്നെ ആധാർ തിരുത്തണമല്ലെ ഓക്കെ സാറെ ഇന്ന് തന്നെ വന്നേക്കാം സാറെ ഇന്നുതന്നെ വന്നു ചെയ്തേക്കാം ഓക്കെ സാറെ താങ്ക് യു